എൻ്റെ പ്രദേശം വയനാടാണ് ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് സസ്യങ്ങളും മറ്റു ഉപകരണങ്ങളുമുണ്ട് അതുകൊണ്ടുതന്നെ ഇവയെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ കരുതലോടുകൂടി നമ്മുടെ പ്രകൃതിയുമായി കൂടിച്ചേർന്ന് കരകൗശലവസ്തുക്കൾ ഉണ്ടാക്കുകയും അതുപോലെതന്നെ നമ്മുടെ കലാകാരന്മാരെ വളരെ അധികം പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത് അതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെയുണ്ടാകുന്നു നമ്മൾ വിദേശരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ വസ്തുക്കളെല്ലാം വളരെ മൂല്യമായിട്ട് വരുന്നത് ടൂറിസവും അതുപോലെതന്നെ മ്യൂസിയവും എല്ലാം നമ്മുടെ നാട്ടിലെ വികസനത്തിന് കാരണമാകുന്നു ടൂറിസത്തിൻ്റെയും വികസനത്തിൻ്റെയുമൊക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റു നേതാക്കളും ടൂറിസം മേഖലയെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂവെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു മ്യൂസിയങ്ങൾ പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ പ്രദർശിപ്പിക്കുകയും അതിലൂടെ വിദേശികൾ നമ്മുടെ നാടിനെക്കുറിച്ച് അറിയുകയുമാണ് ചെയ്യുന്നത് അതിനെല്ലാം നമ്മൾ മ്യൂസിയങ്ങളും കാര്യങ്ങളുമെല്ലാം എപ്പോഴും നല്ല വൃത്തിയായി കൊണ്ടുനടക്കുകയും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെലവഴിക്കുകയും അതിനെ എപ്പോഴും മികച്ച രീതിയിൽ തന്നെയാക്കുകയുമാണ് ചെയ്യേണ്ടത്